ഹാലോ ഓട്ടോക്കാരൻ ബാബു അല്ലേ ഇത് എനിക്ക് മഞ്ചേരിലേക്കൊന്ന് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോള് നിങ്ങള് പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ അവിടെയല്ല ഞാൻ നില്ക്കുന്നത് ഞാൻ എനിക്ക് പെട്ടെന്ന് കമ്പനിയിലേക്കു പോരണ്ട ആവശ്യം വന്നു ഒരു മീറ്റിങ്ങുണ്ടായിരുന്നു ജോലിക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോള് നിങ്ങള് ഇങ്ങാട്ട് താമരശേരിക്കാണ് വരണ്ടത് അപ്പോള് മഞ്ചേരീന്ന് നിങ്ങള് പോരുമ്പോള് പാണ്ടിക്കാടുറോട്ടിന് പോന്നിട്ട് കുട്ടപ്പാറക്കലെത്തിയിട്ട് അവിടുന്ന് അത്താണിക്കല് വഴി പിന്നെ താമരശ്ശേരി എത്തണം അവിടുന്ന് അതായത് നെല്ലികുത്തിക്ക് അങ്ങോട്ട് പോകണ്ട താമരശ്ശേരിയാണ് താമരശേരിയില്നിന്ന് നേരെ കാരേപറമ്പിക്കുള്ള റോട്ടിന് തിരിഞ്ഞിട്ടാണ് പോരണ്ടത് കേട്ടോ പിന്നെ കഴിഞ്ഞപ്രാവശ്യത്തെ പോലെ നിങ്ങള് സമയം വൈകരുത് ആ കൃത്യസമയത്ത് തന്നെ എത്തണം അന്ന് നിങ്ങളുടെയടുത്ത് ഞാന് പറഞ്ഞ സമയം കഴിഞ്ഞ് നിങ്ങളൊരു മുക്കാല് മണിക്കൂര് വൈകിയിട്ടാണ് വന്നത് അപ്പോള് ഇപ്രവശ്യം അങ്ങനെയാവരുത് എനിക്ക് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തണം അതുകൊണ്ട് സോറി അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് അല്ല ഞാൻ നില്ക്കുന്നത് അതുകൊണ്ട് ക്ഷമിക്കണം ഇപ്പോള് പെട്ടെന്ന് പോരേണ്ടിവന്നതുകൊണ്ടാണ് കേട്ടോ